വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കില് ഈ സ്കൂളിന് പുറത്തുള്ള ട്യൂഷൻ അങ്ങനെയൊരവസ്ഥ നമ്മുടെ സ്കൂളില് ഉള്ളിടത്തോളം കാലം അതിന് അത് ആ സ്കൂളിൻ്റെ ഒരു അപാകത ആയിട്ട് അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അപാകത ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഒരിക്കലും ഒരു കുട്ടി ഇരുപത്തിനാല് മണിക്കൂറും പഠിച്ച് നടന്നാൽ മാത്രം പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്കൂളില് ജീവിതത്തിൻ്റെ സമഭാഗവും പകല് അന്തിയോളം സ്കൂളിലും അതിന് ശേഷം കിട്ടുന്ന ഒരു നാല് മണി സമയത്തുള്ള പിന്നൊരു ട്യൂഷനും ആയാൽ പിന്നെ ആ കുട്ടി എങ്ങനെയാ കായികമായിട്ടോ അല്ലെങ്കിൽ മാനുഷികമായിട്ടോ വളർച്ച നേടുക സമൂഹവും ആയിട്ട് എന്തേലും ബന്ധം ഉണ്ടാവുക കളിക്കുക ശാരീരിക അഭ്യാസങ്ങൾ ഉണ്ടാവുക നമ്മുടെ ഒക്കെ അത്ലെറ്റിസുകളെ ഉണ്ടാക്കാൻ ഇപ്പോൾ അത് അത്ലെറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രേയ്ഡ് ആയിട്ട് മാറി സാധാരണക്കാർക്ക് എല്ലാവർക്കും പറ്റാവുന്നതല്ല അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്ത അവസ്ഥ അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപാകത ആണെന്ന് വിശ്വസിക്കുന്ന ആള് ഞാൻ കാരണം ഒരു കുട്ടിയെ എല്ലാ തരത്തിലും മികവുറ്റുള്ള രീതിയിലാക്കേണ്ടത് സ്കൂളിൽനിന്നാണ് അല്ലാതെ പ്രത്യേകം ഓരോന്നിനും ട്യൂഷൻ കൊടുത്തിട്ടാവരുത് അത് തെറ്റായ വിദ്യാഭ്യാസ സമ്പ്രദായ സമ്പ്രദായമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ